തീർച്ചയായും ഇതര സംസ്ഥാനങ്ങളില് നിന്നുള്ള നൃത്തരൂപങ്ങള് നമ്മുടെ നാട്ടിലേക്കുള്ള കടന്നുവരവുണ്ട് ഒരുപാട് പിന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നൃത്തകലകൾക്കൊക്കെ അപചയം സംഭവിച്ചിട്ടുണ്ട് മെയിനായിട്ടും പ്രധാനമായിട്ടും നാടൻ നൃത്തകലകളുണ്ട് നാടൻ കലകളെന്ന് പറയുന്നത് കൈകൊട്ടിക്കളി അങ്ങനെയുള്ള കളികളും പിന്നെ ഈ ആദിവാസികളുടേതായ കലാരൂപങ്ങള് ഈ പണ്ടൊക്കെ കൊയ്ത്തുപാടങ്ങളിലൊക്കെ പാടിക്കൊണ്ട് അവരൊക്കെ അതൊക്കെ ഒരു ഉത്സവത്തിൻ്റെ സമയങ്ങളിലൊക്കെ അവരുടെ നൃത്തങ്ങളുണ്ടായിട്ടുണ്ട് നാടൻ ശീലുകള് അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ നൃത്തരൂപങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു അതൊന്നും ഇപ്പം ആ ആൾക്കാര് അതൊക്കെ ഉപേക്ഷിച്ച മട്ടാണ് അതൊക്കെ നല്ലവണ്ണം പ്രാവീണ്യമുള്ള ആളുകളുണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ അതുപോലെ നാടോടിനൃത്തം നാടോടിനൃത്തമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതായിരുന്നു മത്സരവേദികളിലൊക്കെ കുട്ടികളൊക്കെ അവതരിപ്പിക്കുക നല്ലയൊരു താളത്തില് അതിന്റേതായ നാടൻ പാട്ടൊക്കെയിട്ട് നല്ലയൊരു എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കലാരൂപം തന്നെയായിരുന്നു അതൊക്കെ ഇപ്പം അപൂർവമായിട്ടൊക്കെ ഈ മത്സരവേദികളില് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ വേദികളിലൊന്നും അങ്ങനെ അധികം കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടേതായ കഥകളി ഓട്ടന്തുള്ളൽ അങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങളൊക്കെയുണ്ട് അതൊന്നും ഇപ്പോള് നിലവിലില്ല നിലവിലില്ലെന്ന് പറഞ്ഞാല് പരിശീലിക്കുന്നില്ല ആളുകള് കഥകളിയൊക്കെ ഉപേക്ഷിച്ച മട്ടാണ് ഇന്നത്തെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും പഥ്യമല്ല അവർക്കിഷ്ടമുള്ള കാര്യമല്ല അതൊന്നും അതുകൂടാതെ നമ്മുടേതായ കേരളത്തിൻ്റെ തനതായ കലയെന്ന് നൃത്തരൂപമെന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ് മോഹിനിയാട്ടമെന്ന് പറയുമ്പോള് അത് ഇപ്പോള് ഈ മത്സരവേദികളിൽ മാത്രം അതായത് സ്കൂൾ കോളേജ് തലങ്ങളിലെ മത്സരവേദികളിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയിട്ടുണ്ട് മോഹിനിയാട്ടമെന്ന് പറയുന്ന കലാരൂപം അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളില് നിന്നുള്ള ഭരതനാട്യം ആണ് ഇപ്പോള് കൂടുതലായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതും എല്ലാ കുട്ടികളും പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതും അതുതന്നെയാണ് കുട്ടികളൊന്നുമല്ല കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇപ്പോൾ ഇന്നത്തെക്കാലത്ത് അതൊക്കെ പഠിക്കുന്നുണ്ട് പണ്ട് പഠിക്കാൻ അവസരം കിട്ടാത്തവര് ഇന്നതൊക്കെ പഠിക്കാനായിട്ട് അവർക്ക് അവസരമുണ്ട് അപ്പോള് അതെല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവര് ഈ ഭരതനാട്യത്തിലേക്കാണ് എല്ലാവരും പല പല നൃത്തരൂപങ്ങളുണ്ട് എങ്കിലും എല്ലാവരും ഭരതനാട്യമാണ് കൂടുതലായിട്ടും ഇത് സെലക്ട് അല്ല ഇത് തെരഞ്ഞെടുക്കുന്നത് അവർക്കൊരു നൃത്തം പഠിക്കണമെന്ന് ആഗ്രഹം വരുന്നതെല്ലാം ഭരതനാട്യത്തിലാണ് അവര് എത്തിച്ചേരുന്നത് ഈ മറ്റ് നൃത്തരൂപങ്ങളൊക്കെയുണ്ടെങ്കിലും അതൊക്കെ അവരെല്ലാവരും ഉപേക്ഷിച്ച മട്ടാണ് അതുപോലെ തന്നെ നാടൻ കലകൾക്കൊന്നും നാടൻ നൃത്തരൂപങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനങ്ങളുടെയിടയില് അല്ല തലമുറയിൽ അതൊന്നും പ്രായോഗികമല്ലാത്ത അവസ്ഥയില് എത്തിയിരിക്കുകയാണ്